എനിക്ക് യാത്ര ചെയ്യാൻ കൂടുതലായി ഇഷ്ടമുള്ള ഭൂപ്രദേശങ്ങളെന്ന് പറയുന്നത് ഈ പറഞ്ഞ എല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട് മലകൾ വനങ്ങൾ ബീച്ചുകൾ മഞ്ഞ് മൂടിയ പർവതങ്ങൾ എല്ലാം തന്നെ ഈ മഞ്ഞ് മൂടിയ പർവ്വതങ്ങളിൽ ഞാൻ പോയിട്ടില്ല അങ്ങനെ പോകാനെനിക്ക് താല്പര്യമുണ്ട് പക്ഷേ അത് ഇതുവരെ നടന്നിട്ടില്ല ഈ മലകളുടെ കാര്യം പറയുവാണേലും മലകളിൽ കയറുന്ന സമയത്ത് ആ പാത എന്നു പറയുന്നത് വളരെ ദുർഘടമായ പാതകളായിരിക്കും അപ്പോൾ നമ്മൾ അങ്ങനെ കയറുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെ പ്പെടുമെങ്കിൽ പോലും നമുക്കെന്താണ് ഒരു ഒരു അതൊക്കെ ഒരു കൗതുകമല്ലേ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് നല്ല നല്ലതായിട്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും നമ്മുടെ കൂടെ നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരോട് സംസാരിച്ച് അവരോടൊത്ത് നമ്മളാ മല കയറുന്ന സമയത്ത് വളരെ നല്ല രീതിയിലുള്ള ഒരു ഒരു ഒരു എന്താണു പറയുക നമുക്കൊരു അനുഭവമായിരിക്കും അങ്ങനാ കയറുന്ന സമയത്ത് പിന്നെ ആ മലമുകളിൽ നിന്ന് നോക്കുന്ന ആ ഒരു സൂര്യാസ്തമനം ആയിരുന്നാലും അല്ലെങ്കിൽ ചിലപ്പോള് സൂര്യോദയമോ ആയിരിക്കും അങ്ങനെ നോക്കുന്ന സമയത്ത് ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാനും നമ്മുടെ ക്യാമറകളിൽ നമ്മൾ ആ ചിത്രങ്ങൾ പകർത്താനും ഒക്കെ നമുക്ക് ഒരവസരമാണ് ലഭിക്കുന്നത് നമ്മൾ സാധാരണ ഗതിയിൽ നമ്മൾ ജീവിച്ചു വരുന്ന ഒരു പ്രദേശത്തു നിന്നും വ്യത്യസ്തമായ പ്രദേശത്തിൽ പോകുമ്പോൾ നമുക്ക് കൗതുകപരമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനും ആസ്വദിക്കാനും ഒക്കെ സാധിക്കുന്ന്ണ്ട് ഇതുപോലെ തന്നെയാണ് ബീച്ചുകളിൽ പോകുമ്പോള് ബീച്ചുകളിൽ പോകുമ്പോൾ ആ ഒരു തിരമാലകൾ തിരമാലകളുടെ ആ ഒരു ആ ഒഴുക്ക് ആ ഒരു ഭംഗി അതിൻ്റെ ഒരു തീവ്രത ഒക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ കടല് കാണാത്തൊരു വ്യക്തിയാണ് ബീച്ചിൽ പോകുന്നതെങ്കിൽ അയാൾക്ക് അതൊരു പുതിയ അനുഭവമായിരിക്കും അതുപോലെ തന്നെ ഈ തിരമാലകൾ വരുന്ന ആ ഒരു വേഗതയൊക്കെ ആ ഒരു നമ്മുടെ കാലിലേക്ക് ഈ വന്ന് തിരകൾ അടിക്കുന്ന ആ ഒരു ആ ഒരു സുഖം അല്ലെങ്കിൽ ആ ഒരു സന്തോഷമൊക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും അതുപോലെത്തന്നെ ഈ ഒരു എന്താണ് വനങ്ങളിൽ പോകുമ്പോൾ വനങ്ങളിൽ പോകുമ്പോഴുള്ളൊരു അവസ്ഥയെന്നു പറഞ്ഞാല് നമ്മുടെ ഈ ഒരു എന്താണു പറയുക ഒരു ഇരുട്ട് അതിൻ്റെ ഒരു കുളിർമ വനത്തിനകത്തുള്ളൊരു കുളിർമ മരങ്ങളുടെ ആ ഒരു നിൽക്കുന്ന ആ ഒരു രീതി പിന്നെ ആ പോകുന്ന ആ ഒരു വഴിയിലുള്ള ആ ഒരു ആ വഴിയുടെ ഒരു ദുർഘടം പിടിച്ച വഴിയാണെങ്കിൽ പോലും നമുക്കത് എന്താണ് നമുക്ക് തരണം ചെയ്ത് മുന്നോട്ടുപോകാന് കഴിയും എന്നുള്ള ഒരു ഇത് ആളുകൾ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ പിന്നെ അത് പോയിട്ട് ഈ വന്യ മൃഗങ്ങൾ വന്യ മൃഗങ്ങൾ ആ കാണുമെന്നുള്ള ഒരു ഭയവുമുണ്ട് അഥവാ വന്യമൃഗങ്ങളെ കാണുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കൊരു കൗതുകവും അങ്ങനെയുള്ള പല കാര്യങ്ങളും നോക്കി ഇങ്ങനെ ഇത്തരത്തിലുള്ള വനങ്ങളിലും ആകെ പോകുന്ന സമയത്ത് നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മളെ അതൊക്കെ നമ്മളെ ആകർഷിക്കുന്നുണ്ട് ഈയൊരു ബീച്ചിലും പർവ്വതനിരകളിലൊക്കെ പോകുമ്പോഴുള്ള ആ ഒരു സൂര്യാസ്തമനമെന്ന് പറയുന്നതും വളരെ ഒരു എന്താ പറയുക ഒരു കൗതുകം കലർന്നൊരു കാഴ്ച തന്നെയാണ് ആ സൂര്യൻ്റെ ആ ഒരു തേജസ് അല്ലെങ്കില് സൂര്യൻ്റെ ആ ഒരു ആകർഷിക്കുന്ന ആ ഒരു രീതി ഒക്കെ നമുക്ക് വളരെ നന്നായിത്തന്നെ ആസ്വദിക്കാൻ സാധിക്കും ഇതൊരു പുതിയ അനുഭവമായി ഏവർക്കും മാറുകയും ചെയ്യും